ഒന്ന് നാല് രണ്ടായിരത്തി രണ്ട് ഇരുപത്തഞ്ച് നാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഇരുപത്തിയാറ് നാല് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് പന്ത്രണ്ട് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് നാല് എട്ട് രണ്ടായിരത്തി പതിനാല്